ഇത് ഗൈഡ് അല്ലായിരുന്നോ കോഴിക്കോട് നിന്ന് കോഴിക്കോട് നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് കോൺടാക്ട് നമ്പർ തന്നതായിരുന്നു ഞാൻ ഈ ടൂറിസ്റ്റ് ഞങ്ങൾ കുറച്ചുപേർ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേരളത്തിലേക്ക് അപ്പം ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ ഏഴ് പേരാണ് വരാൻ ഉദ്ദേശിക്കുന്നത് മ് അപ്പം

ഞങ്ങൾ ട്രെയിനിൽ വരാം നിങ്ങൾ അവിടുന്ന് വണ്ടി അലോവ് ചെയ്യില്ലേ നിങ്ങൾ പിക്ക് ചെയ്യാൻ വന്നാൽ മതി ആ പി പിക്ക് ചെയ്യാൻ വന്നാൽ മതി ഞങ്ങൾ ടൈം പറയാം എപ്പോഴാണ് അവിടെ എത്തുന്നത് ഏകദേശം ടൈം ഉണ്ടാവുമല്ലോ അല്ല ഇപ്പോൾ പിന്നെ കേരളം മുഴുവനായിട്ട് വേണ്ട ഇടുക്കി കോഴിക്കോട് വയനാട് പിന്നെ ഏതെങ്കിലും നല്ല ആ അതെ അതെ അതെ ഞാൻ പതിനഞ്ചാം തീയതിയാണ് വരാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ അക്കോമഡേഷനും ഫുഡും കാര്യങ്ങളൊക്കെയോ

ഓക്കേ ഓക്കേ ആ അങ്ങനെ അങ്ങനെ മതി ഇല്ലയില്ല ഇല്ലില്ല ഫ്രണ്ട്സ് ആണ് വർക്ക് ചെയ്യുന്നത് ഓക്കേ

എത്രയാണ് എക്സ്പെൻസ് എത്രയാവും നമുക്കൊരു ടെൻ ഡേയ്സ് നമ്മൾ കാലിക്കറ്റ് തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ നമുക്കിപ്പം വേറെ ജില്ലകളിലൊക്കെ പോവണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇതാക്കണമല്ലോ ഒരു പത്ത്

ആ പതിനാലാം തീയതി ഇവിടുന്ന് പതിനാലാം തീയതി ഉച്ചയ്ക്ക് ഇറങ്ങും അവിടെ ഒരു മോർണിംഗ് ഒക്കെ എത്തും അതായത് പതിനഞ്ചാം തീയതി മോർണിംഗ് ഒക്കെ ആകുമ്പോഴേക്കും എത്തും

ഓക്കേ താങ്ക് യൂ